വളരെ പ്രതി പ്രകൃതി മനോഹരമായ ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിൽ ശ്രദ്ധേയമായ ഒരുപാട് വിനോദസഞ്ചാര ആകർഷണങ്ങൾ ഉണ്ട് അതിൽ ചിലതാണ് മലമ്പുഴ ഉദ്യാനം മലമ്പുഴ ഡാം അതുപോലെ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റ് കൽപ്പാത്തി ക്ഷേത്രം എന്നിവയെല്ലാം അപ്പം പാലക്കാട് ഇ ഇവിടെ സന്ദർശകർക്ക് ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രകൃതിഭംഗി തന്നെയാണ് മലമ്പുഴ ഉദ്യാനം പൂക്കളും പൂക്കൾ കൊണ്ട് നിറച്ചൊരു സ്ഥലമാണ് അവിടെ ഒരുപാട് പൂക്കളും നല്ല നല്ല ഭംഗിയുള്ള പ്രതിമകളും ചെറിയ ചെറിയ വ്യൂ പോയിൻറ്റുകളുമെല്ലാം ആയിട്ടുള്ളൊരു വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് മലമ്പുഴ ഉദ്യാനവും അതിനോട് ചേർന്നാണാ അണക്കെട്ടും വളരേ അധികം കാണാൻ രസമുള്ളൊരു കാഴ്ച തന്നെയാണ് മലമ്പുഴ ഉദ്യാ അണക്കെട്ടിന് അടുത്തുള്ള കവ എന്ന സ്ഥലവും വളരെ അധികം പ്രജ വളരെ അധികം പ്രത്യേകത നിറഞ്ഞൊരു സ്ഥലം കൂടിയാണ് പ്രകൃതിഭംഗി എന്തുകൊണ്ടും തികഞ്ഞ് നിൽക്കുന്നൊരു സ്ഥലമാണ് കവ ഈ കവയിൽ നമുക്കവിടെ നല്ല സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല ച കോടമഞ്ഞുള്ളൊരു സ്ഥലമാണ് നമുക്ക് പാലക്കാട് പാലക്കാട് കോടമഞ്ഞ് കാണുന്നൊരു സ്ഥലം ഈ കവയാണ് വെയിലും ചൂടും ആണെങ്കിലും അതല്ലാത്ത സമയങ്ങളിലെല്ലാം നല്ലൊരു പ്രകൃതിഭംഗി തന്നെ നമുക്ക് അവിടെ ആസ്വദിക്കാൻ കഴിയും പിന്നെ പരന്ന് കിടക്കുന്ന പാടവരമ്പുകളും വലിയൊരു കാഴ്ച തന്നെയാണ്